നമക്ക് അതിന് പോകണമെങ്കിൽ എന്തൊക്കെയാണ് ഇനി ഇപ്പം കാട്ടുക കാരണം പാസ്പ്പോട്ട് പുതുക്കലും പാസ്പോർട്ടിന് അപേഷ കൊടുക്കൽ അല്ലെങ്കി പാസ്പോർട്ടിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ ഒന്ന് പറയണ ഐനിപ്പ ഇനിയെന്തൊക്കെ വാണ്ടിര്യ എിവിടേക്ക് നമ്മൾ പൊണ്ടിര്യാ ആരൊക്കെ കാണ്ടിര്യാന്നുള്ളത് പറയണം പിന്നെ അതുപോലെ തന്നിനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവൾ ചെൽപ്പമ്മളല്ലെ ആ ഒരിതിലേയ്ക്കാര ചിലപ്പോൾ അവടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പോയത് കൊണ്ട് തന്നെയാണ് എനിക്ക് ആ ഒരു ആദ്യയിട്ട് ആണ് ഞാൻ പോണത് അപ്പം അവിടത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേരണാനാച്ചെന്നേ ചിലപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചിലപ്പം അറിയില്ല ഒരു എവിടെ ഒക്കെയാണ് കാര്യങ്ങൾ ബുദ്ധിമുട്ടൊക്കെ പിന്നെ എന്തായലും നിങ്ങൾക്ക് അതിൻ്റെ നല്ല എക്സ്പീരിയൻസ്സ് ഉണ്ടല്ലോ നിങ്ങൾ പോയതുമല്ലെ പിന്നേ അവിടുത്തെ ക്ലൈമറ്റ് ഇപ്പം നമ്മൾ തായ്ലാൻ്റിലേക്കൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കിക്കോന്നാ ഒന്നാമത് ഇത്ര വയസ്സായില്ലേ ഇനി അവിടെ ചെന്നാൽ ആദ്യത്തെ മാതിരി നമ്മളെ അന്ന് നിങ്ങൾ പോയത് പോലെ പോകാൻ പറ്റുമോ അവിടെ പിടിച്ച് നിൽക്കാൻ കഴിയുമോ അവിടത്തെ ഫുഡ്ഡ് പറ്റുമോ അന്ന് തന്നെ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ നിങ്ങൾക്ക് പറ്റുമോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കണം അതൊന്ന് ചോദിച്ച് നോക്കണം എന്നിട്ട് നമുക്ക് അവിടെ ചെന്നിട്ട് എന്തക്കെയാണ് അവിടെ നിങ്ങൾക്ക് ചെന്നപ്പം നിങ്ങൾ പറഞ്ഞില്ലേ ഇങ്ങനെ ഇങ്ങനെ ഒക്കെ രണ്ടാം വട്ടം പോയാൽ ഞാൻ അങ്ങനെയാണ് ചെയ്യുക അങ്ങനെ അത് ആ രൂപത്തിൽ നമ്മൾക്ക് ഇപ്പം തന്നെ ഒരു പ്ലാനിങ്ങ് ആക്കി കൊണ്ട് വേണം പോവാൻ അപ്പോൾ അതൊന്ന് നിങ്ങൾ കൂടുതൽ ചോദിച്ചറിയുക കാരണം നമ്മൾ ആദ്യമായിട്ട് ഞാൻ ആദ്യമായിട്ട് പോരുകയല്ലേ അപ്പം അതൊന്ന് ചോദിച്ചറിഞ്ഞു കൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ എവിടെ ഒക്കെ എങ്ങനെ ഒരുങ്ങി ആദ്യത്തെ പോലെ ഒരു ഇതൊന്നും പറ്റാതെ എവിടെയൊക്കെയാണ് നമുക്ക് അതിനുള്ള അറേഞ്ച്മെൻ്റൊക്കെ ചെയ്യുക പാസ്പോർട്ടിൽ എന്തൊക്കെയാ ണ് ചെയ്യണ്ടേര്യ ഞാൻ ആദ്യമായിട്ട് പാസ്പ്പോട്ട് എടുക്കുകയാണ് അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പിന്നേ ഒന്ന് ചെയ്യുക ഒന്ന് ഒന്ന് ചോദിച്ചറിയുക അതിലെന്തൊക്കെയാണ് ഇനി ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളത് ഇനി ആരെയൊക്കെ കാണണം എന്നുള്ളതൊക്കെ കേട്ടോ പിന്നെ അതേപോലെ തന്നെ അവിടെ ചെല്ലുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അ എവിടെയാണ് പോയെറങണ്ടിര്യ ആരെ ആണ് നമ്മൾ ആദ്യം വിളിക്കേണ്ടി വരിക എന്നുള്ളതൊക്കെ ഒന്ന് നമുക്ക് അറിയുക ആണെങ്കിൽ എന്നാൽ പിന്നെ നമ്മൾക്ക് സുഖമാണെന്ന് തന്നെ സമയത്തിന് നമ്മൾക്ക് ഇന്ന സമയത്ത് എത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് ഏത് എന്താണ് പറയുക ഗതാഗതമാണോ ഉപയോഗിക്കേണ്ടത് വാഹനം വഴിയാണ് പോകേണ്ടത് എന്നൊക്കെ നമുക്ക് പ്രത്യേകിച്ച് അറിയാൻ കഴിയാമല്ലോ ഒരു വട്ടം നിങ്ങൾ പോയത് കൊണ്ട് തന്നെ ആ ഒരു രൂപത്തിൽ നമ്മൾക്ക് അത് പെട്ടെന്ന് ആക്കാൻ കഴിയും എന്തായാലും നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കി